നാം എഴുതുന്നത് നമുക്കു തന്നെ ഒരു പ്രചോദനമാണ്

എപ്പോഴും എഴുത്തുകളിൽ ഏർപ്പെടുമ്പോഴും ഓരോ ഓരോ വിഷയം കിട്ടുമ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഓരോ എഴുതുന്നത് നമുക്ക് നല്ല കാര്യം തന്നെയാണ് പല കാര്യങ്ങളിൽ പല വിഷയങ്ങളിൽ നമ്മൾ എഴുത്തിലിവിടെ നമ്മൾ വ വായന കൂടുമ്പോഴാണല്ലോ നമുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം നൽകേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതലും വായിക്കുക അതു കൊണ്ട് അതുപോലെ തന്നെ എഴുതുക ലേഖനങ്ങളായാലും കവിതകളായാലും പിന്നെ കഥകളായാലും അങ്ങനെ ഓരോന്നും നമ്മൾ എഴുതുക എഴുതി എഴുതി എന്താന്നേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൂടുതലാളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനും നമുക്ക് കഴിയും ഞാൻ എഴുതി ഞ ഞാൻ ഓരോന്നിലും എഴുതാറുണ്ടല്ലോ പല എഴുത്തുകളിലും നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴായാലും എപ്പോഴായാലും ചില വിഷയങ്ങൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായത് ഞമ്മൾ എഴുതി വെക്കും അത് വായിച്ചിട്ട് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകും നല്ല അഭിപ്രായങ്ങളുണ്ടാകും ചീത്ത അഭിപ്രായങ്ങളുണ്ടാകും നല്ല അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടാൽ നമ്മൾ നമുക്കൊരു ഉഷാറാണ്

പഠിച്ചിട്ട് നമ്മൾ എഴുതി എല്ലാം മനസ്സിലാക്കി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും കഴിയും ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയതിന് എല്ലാവരും പിന്തുണക്കാറും ഉണ്ട് എഴുത്ത് നമുക്ക് എന്താ അധികരിപ്പിച്ചാൽ നമുക്ക് പല ഇതും കിട്ടും നമ്മൾ എഴുതുക ഇത് അത്ര പോര എന്നൊന്നും ആരും പറയില്ല എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചാൽ നമുക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എന്താണ് വായിക്കുന്നവരത് എന്താണ് തെറ്റു തിരുത്താനും എല്ലാറ്റിനും നമുക്ക് കൂടെ നിൽക്കും അപ്പോൾ നമുക്ക് അത് നല്ലൊരു പ്രചോദനമാണ് അങ്ങനെ എഴുതി എഴുതിയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പത്രത്തിൽ ഓരോ നമുക്ക് എന്താ പത്രത്തിലായാലും പുസ്തകങ്ങളിലായാലും നമുക്ക് എന്തെങ്കിലും വായിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും ഇപ്പോൾ എല്ലാവരും ഫോണിൽ ഫോണിൽ നോക്കിയാൽ സർച്ച് ചെയ്താൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും അതു മനസ്സിലാക്കി അതു പോലെ നമ്മൾ പ്രാവർ എന്താണ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് എന്താണ് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു തെറ്റുകുറ്റവുമില്ലാതെ നമുക്ക് എഴുതാനും അപ്പം എന്താണ് സാധിക്കും അപ്പോ അത് എഴുതുന്ന എഴുതുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അത അല്ലാതെ നമ്മൾ തെറ്റ് ഇതാക്കാൻ പ പാടില്ല